ഇന്നത്തെ കാലത്ത് സ്കൂൾ വിദ്യാഭ്യാസത്തിനുശേഷം ഏകദേശം എല്ലാ വിദ്യാർത്ഥികളും ഉന്നത വിദ്യാഭ്യാസം പിന്തുടരുന്നവരാണ് കുടുംബ ബിസിനസ്സിൽ തുടരുന്നത് തന്നെ അവരുടെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചിട്ടാണ് അതിനുശേഷം എല്ലാവരും അവരുടേതായ ജോലികൾ കണ്ടുപിടിക്കാനുള്ള തിരക്കിൽ തന്നെയാണ് സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം എല്ലാ വിദ്യാർത്ഥികളും ഉന്നത വിദ്യാഭ്യാസം പിന്തുടരുന്നവരാണ്